ഹലോ ആ ഇത് ലാൻഡ്ലൈൻ ഓഫീസല്ലേ ഓക്കെ ഞാൻ ഒരു ഫോൺ ബില്ല് പേ ചെയ്തിരുന്നു അതെ ആപ്പ് വഴിയാണ് ചെയ്തത് പക്ഷെ മെസ്സേജ് വന്നത് നോട്ട് പെയ്ഡ് എന്നാണ് പേ ചെയ്തു സക്സസ്ഫുള്ളി പെയ്ഡ് എന്നാണ് കാണിച്ചത് പക്ഷെ മെസ്സേജ് വന്നത് നോട്ട് പേഡ് എന്നാണ് അത് എന്താ റീസൺ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് വേറെ റെസിപ്റ്റൊന്നും കിട്ടിയിട്ടില്ല ആ എൻ്റെ ഫോൺ നമ്പറ് ഒന്ന് നോട്ട് ചെയ്തോളൂ രണ്ട് നാല് മൂന്ന് നാല് അഞ്ച് മൂന്ന് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് അതെ അതെ ഒരു വർഷത്തേക്കാണ് ഞാൻ റീചാർജ് ചെയ്തത് അതെ രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ റീചാർജാ ചെയ്തത് റെസിപ്റ്റൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ പേ ചെയ്ത സമയത്ത് മെസ്സേജ് വന്നിരുന്നു പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് പിന്നീട് വന്നത് നോട്ട് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത് അതെ അതെ അതിൻ്റെ റീസൺ എന്താണെന്നറിയാനാണ് ഞാൻ വിളിച്ചത് നമ്മൾ അവിടെ ബിൽ പേ ചെയ്തത് അവിടെ അപ്ഡേറ്റ് ആയിട്ടില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഓക്കെ എനിക്കിതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ട് ഓക്കെ എന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽസേ ഇതിൻ്റെ ഞാൻ എൻ്റെ ബില്ല് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സ്റ്റാറ്റസ് എനിക്കൊന്ന് അയക്കണം കേട്ടോ താങ്ക് യൂ സർ താക് യൂ